ഹലോ യു ഫോം റെസ്റ്റോറന്റല്ലേ ഞാന് കുറച്ച് മുൻപേ വിളിച്ചിട്ട് ഞാൻ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അതായത് നൈറ്റ് ഡിന്നറിലേക്ക് ഡിന്നറിലേക്കുള്ള ചപ്പാത്തി പൊറോട്ട ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചിക്കൻ ചില്ലി മട്ടൻ റൈസ് പിന്നെ കുഴിമന്തി അങ്ങനെയുള്ള കുറച്ച് ഫുഡ് ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നിങ്ങളത് കൊണ്ട് വരാൻ തുടങ്ങിയിട്ടില്ലല്ലൊ പ്യാക്ക് ചെയ്തിട്ടില്ലല്ലോ ഓ ഭാഗ്യായി കാരണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രൊഡക്റ്റൊന്ന് ഈ ഫുഡ് ഞാനൊന്ന് കാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത് കാരണമെന്താണ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്കിവടെ എന്റൊരു ഫ്രണ്ടിന് കുറച്ച് സുഖമില്ലാണ്ടായി അപ്പം ഞങ്ങളെല്ലാവരും ആ അങ്ങോട്ടേക്ക് പോകുവാണ് അപ്പം നമ്മള് പ്ലാൻ ചെയ്തായിരുന്ന ബാച്ച്ലേർസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു അപ്പോൾ ഫ്രണ്ടിന് പെട്ടെന്ന് സുഖമില്ലാണ്ടായി അതുകൊണ്ട് തന്നെ നമ്മളത് പ്ലാനിങ് അത് നമ്മള് പ്ലാനൊക്കെ മാറ്റി വെച്ചു അപ്പോൾ നമുക്കത് പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു കേട്ടോ വിളിച്ചത് ആപ്പില് നോക്കിയപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നേരിട്ട് വിളിച്ചത് ആ ഓക്കെ ഓക്കെ ടാങ്ക്യു